കുഴൽ കിണറിൻ്റെ പ്രവർത്തന രീതി ചോദിച്ച് കഴിഞ്ഞാൽ ആദ്യം വെള്ളം ഉള്ള വെള്ളം ഉള്ള സ്ഥലം കണ്ട് പിടിച്ച് അവിടെ കിണർ കുഴിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം കൊണ്ടുപോയി കിണർ കുഴിച്ച് തറ ഒക്കെ പൊട്ടിച്ച് വെള്ളം കുറെ കണ്ടെത്തിയതിന് ശേഷം മോട്ടർ ഒക്കെ ഇട്ട് വെള്ളം അടിച്ച് കയറ്റും അടിച്ച് ടാങ്കിൽ കയറ്റി ആവശ്യമുള്ളവർക്ക് കൊടുക്കും അങ്ങനെയാണ് കുഴൽ കിണർ സാധാരണ കിണറുകൾ കുറേ വീതിക്ക് വലിയ സര്ക്കിളാണ് പക്ഷേ കുഴൽ കിണർ തീരെ ചെറിയ ഒരു സർക്കിളിൽ താഴോട്ട് തുരന്ന് കുഴിച്ചാണ് പോകുന്നത് പക്ഷേ ആ വെള്ളത്തിന് കുറേ ദുരുപകയോഗങ്ങൾ ഉണ്ട് ആ വെള്ളത്തിന് ഓക്സിജൻ ലെവൽ തീരെ കുറവായിരിക്കും താഴ്ന്ന് കുഴൽക്കിണറൊക്കെ താഴ്ന്നു അങ്ങ് ഏറ്റവും താഴെ അങ്ങ് പോകും അവിടെ ഓക്സിജൻ ലെവൽ വളരെ കുറവായിരിക്കും അപ്പം ആ വെള്ളത്തിന് ഒക്കെ കുറച്ച് സൈഡ് ഇഫക്റ്റ്സ് വരും നമ്മൾ അതിൽ കുളിക്കുമ്പോൾ ഒക്കെ നമ്മളുടെ മുടി ഒക്കെ കുറേ കൊഴിയാൻ സാധ്യതയുണ്ട് മുടി നരയ്ക്കാൻ സാധ്യതയുണ്ട് സ്കിൻ ഒക്കെ ഡ്രൈ ആകും അപ്പം അങ്ങനെ ഉള്ള കുറച്ച് ദൂഷ്യ ഫലങ്ങൾ കുഴൽ കിണറിലെ വെള്ളത്തിൽ ഉണ്ട് നമ്മുടെ ഗ്രാമത്തിൽ പൊതുവായൊരു കുഴൽ കിണർ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഉണ്ട് ഞാൻ താമസിക്കുന്നത് ഒരു മലയോര പ്രദേശത്താണ് അപ്പോൾ മലയോര പ്രദേശത്ത് പാറകളായത് കൊണ്ട് കിണർ കുഴിക്കാനുള്ള സംവിധാനങ്ങളോ കിണർ വയ്ക്കാനുള്ള സ്ഥലങ്ങളോ ഇല്ലാത്തത് കൊണ്ട് പൊതുവായിട്ട് ഒരു കെഴ കുഴൽക്കിണറില് നിന്നു തന്നെയാണ് നമ്മൾ വെള്ളം എടുക്കുന്നത് അത് എല്ലാ വീട്ടുകാരും മാസാമാസം പിരിച്ച് ഒരേപോലെ പിരിവിട്ട് പൈസ ഇട്ട് മോട്ടറിൻ്റെ തുക അടച്ച് കരണ്ട് ബിൽ അടയ്ക്കും പിന്നെ മോട്ടറിന് എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പത്ത് പതിനെട്ട് വീടുണ്ട് ഈ പതിനെട്ട് വീടുകാരും ഈയൊരു കുഴൽക്കിണറിന ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ മോട്ടോറിന് എന്ത് തകരാർ വന്നാലും ഈ പതിനെട്ട് വീട്ടുകാരേയും ഫണ്ട് ഇട്ട് എല്ലാവരും ഒരേ പോലെ ഫണ്ടിട്ട് ഇല്ലാത്തവർക്ക് ഉള്ളവർ കുറച്ച് കൊടുത്ത് സഹായിച്ച് നമ്മൾ വെള്ളം അത്യാവശ്യമാണ് വെള്ളം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല അപ്പോൾ ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ ഈ കുഴൽ കിണർ ഒരു ഉപകാരമായൊന്നാണ് പക്ഷേ കുറച്ച് ദൂശ്യഫലങ്ങൾ ഉണ്ട് എന്നേ ഉള്ളു പക്ഷേ വെള്ളം ഇല്ലാത ജീവിക്കാൻ അപ്പോൾ എന്നാലും ഇപ്പം നാട്ടു പ്രദേശങ്ങളിൽ ഇപ്പം കിണർ ഇൻ്റെ യൂസ് ഉണ്ട് പക്ഷേ വീട്ടിലെ ആവശ്യങ്ങൾക്ക് മാത്രമായിരിക്കും കൂടുതൽ വെള്ളം എടുക്കാറ് ബാക്കി കുഞ്ഞ് പിള്ളേരെക്കെ കൂടുതലും തോട്ടിൽ ആറ്റിൽ കുളത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കും പോയി കുളിക്കുക എന്നാലും കുഴൽ കിണർ ഒരു നല്ല കാര്യമാണ് പക്ഷേ നമ്മുടെ സാധാ വീട്ടിലൊക്കെ ഉള്ള കിണറിനെ പോലത്തെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി കിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തേ അപ്പോൾ കുറച്ച് ഓക്സിജൻ ലെവലൊക്ക കുറവായതുകൊണ്ട് കുറച്ച് ദൂഷ്യഫലങ്ങൾ ഉണ്ട് എന്നാലും നമുക്ക് ഇപ്പം നിവർത്തിയില്ലാതെ വരുമ്പോൾ കുഴൽ കിണർ വെച്ചേ പറ്റൂ എന്ന് നിർബന്ധം വെച്ചേ പറ്റൂ നമുക്ക് വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മുടെ ആവശ്യത്തിന് കുഴൽ കിണർ വെച്ച് വെള്ളം എടുക്കുന്നതിൽ തെറ്റില്ല പിന്നേയും ഇത് കിണറിൻ്റെ നമ്മുടെ വീട്ടിലെ കിണറിൻ്റെ അത്ര സാധാ കിണറിൻ്റെ അത്ര ഒരു ഇത് കിട്ടില്ല എന്നേയുള്ളു എന്നാലും നമ്മുടെ ആവശ്യത്തിനത് ഇപ്പോൾ ഉപയോഗിച്ചേ പറ്റൂ കുഴൽ കിണർ ഒരു നല്ല കാര്യം തന്നെ ആണ് പ്രവർത്തിക്കുന്ന രീതി ഒക്കെ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു എനിക്ക് അത്രയുമേ അറിയാവു അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് ഒരു കിണറുണ്ട് കുഴൽ കിണർ തന്നെയാണ് ഉള്ളത് അതിൽ നിന്നാണ് എല്ലാവരും വെള്ളമെടുക്കുന്നത് പക്ഷേ ഇപ്പം കുറച്ച് നാളുകളായിട്ട് അതിലും വെള്ളം വറ്റി അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്